കേരളം എന്ന് പറയുന്നത് സത്യത്തിൽ മത സൗഹാർദത്തിൻ്റെ മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം കേരളം അങ്ങനെ ആയിരുന്നു കേരളം അങ്ങനെ ആണ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ജനവിഭാഗങ്ങളും പക്ഷേ അടുത്ത കാലത്തായിട്ട് ചില സംഭവങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമാണ് കാരണം കേരളത്തിൽ എങ്ങനെ എങ്കിലും മതസൗഹാർദം തകർക്കം ആണോന്നും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്ന കുറേ എങ്കിലും ആളുകൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയുമൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതിനു വേണ്ടിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് ഭയപ്പെടുത്തുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിവിധ മതവിഭാഗങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമിച്ച് സഹോദരരെ പോലെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഇവിടെ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളവിടെ പോയി അതിൽ പങ്കെടുക്കും അതുപോലെ തന്നെ പള്ളികളിൽ തിരുന്നാളുകൾ നടക്കുമ്പോൾ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ അവിടെ പോകാറുണ്ട് അതിൽ നിന്നക്കെ ഒഴിവാക്കി നിൽക്കുന്ന ചില ആളുകളുണ്ടാവും വർഗീകയമായ ചേരിതിരിവിന് വേണ്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഇടപെടുന്ന ചില ആളുകളുണ്ടാവാം പക്ഷേ ബഹുഭൂരിപക്ഷം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇവിടെ മതങ്ങളുടെ വേലി കെട്ടുകൾക്കപ്പുറത്ത് മനുഷ്യൻ ഒരുമയോടു കൂടി സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കയും അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണെങ്കിൽ ഞങ്ങളുടെ പള്ളിടെ തിരുനാളിന് നമ്മൾ അമ്പെഴുന്നള്ളിക്കാന്നൊക്കെ പറയുന്ന ചടങ്ങുകളുണ്ട് അത് ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ അടുത്ത ഒരു തിരുന്നാൾ വരുന്നത് വരെ ഉള്ളൊരു കാലത്ത് വിശുദ്ധർ ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു പള്ളി പെരുന്നാളിന് പോകുന്ന വിശ്വാസികൾ അമ്പെഴുന്നള്ളിക്കുന്നത് പക്ഷേ ഞാൻ ഒക്കെ ഇവിടെ തിരുനാൾ കമിറ്റിടൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം നൂറ് കണക്കിന് അതായത് ഒരു പക്ഷേ ഇവിടത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയെക്കാൾ കൂടുതലായിട്ട് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ വരികയും അമ്പെഴുന്നള്ളിക്കയും അതും വളരെ ഏറെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം അമ്പലത്തിലെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഊട്ട് നേർച്ചയുണ്ട് ആ ഊട്ട് നേർച്ചയിൽ ഒക്കെ പോയിട്ട് പങ്കെടുക്കുന്നന്ന് പറയുന്നത് മുഴവൻ ആളുകളും അല്ലാതിങ്ങനെ ഒരു ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് മനുഷ്യനെ കാണുകയും അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ മാധ്യമങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെയല്ല ഇവിടെ നമുക്ക് അറിയാം ഇപ്പോൾ ഒരു പ്രണയം അത് ജാതിയുടേം മതത്തിൻ്റെഒക്കെ അപ്പുറത്ത് ഉള്ളൊരു വിഷയവാണ് ഒരാണും ഒരു പെണ്ണും അല്ലേ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരുടെ പ്രായത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവർ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് മാനുഷികമാണ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ അതിനെ ജാതിയുടെ വേലി കെട്ടുകളിലേക്ക് നിന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ചില മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവും കാരണം എനിക്ക് അറിയാവുന്ന ഒരു കണക്ക് വെച്ച് നോക്കാണെങ്കിൽ ഞങ്ങളുടെക്കെ നാട്ടിൽ അതിനാത്തൊരു ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പെണ്ണിനേം കൊണ്ട് പോയതിനേക്കാൽ കൂടുതലായിട്ട് ക്രിസ്ത്യാനികൾ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് അറിയാം കഥ അനുഭവങ്ങൾ അറിയാം അപ്പം അതാ ഇതിങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ് പക്ഷേ കഴിഞ്ഞ കാലത്ത് പാല രൂപതയുടെ മെത്രാൻ ഈ നാർക്കോട്ടിക്ക് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ ആ വിഷയത്തെ എത്ര സെൻസിറ്റീവാക്കി അത് എത്ര മാത്രം പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ വാർത്തകൾ ചമച്ചു എന്നുള്ളത് വളരെ അത് ഈ ജെസ്റ്റ് അത് അങ്ങനെ പറഞ്ഞു അവിടെ തീർന്നു എന്ന കണ്ടിരുന്നെങ്കിൽ ഒരു വിഷയമോ ഉണ്ടാകേലാത്തൊരു കാര്യമാണ് ഇവിടെ ഇടുക്കിയുടെ ആദരണീയനായ അന്തരിച്ച ആനകുഴിക്കാട്ടിൽ പിതാവ് ലൗ ജിഹാത് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിക്കൽ ഉപയോഗിച്ചത് ഞാൻ ഓർക്കാണ് ലൗജിഹാത് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാാൻ ഉണ്ടായൊരു കാരണം ഈ ആനക്കുഴക്കാട്ടിൽ പിതാവിൻ്റെ ഇടവകയായ കുഞ്ചിതണ്ണ ഇടവകയിൽ നിന്ന് ഒരു അഞ്ച് ആറ് കുടുംബങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനി പെൺപിള്ളേർ അവിടെയുള്ള മറ്റ് സമുദായത്തിൽപ്പെട്ട പിള്ളേരുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അവർ പ്രണയിച്ചു അവർ കല്യാണം കഴിച്ചു പോയി ശരി അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് വന്ന കൂട്ടത്തിലാണ് പിതാവ് ഇങ്ങനെ ഒരു ലൗ ജിഹാതൊണ്ട് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയത് പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടത്തെ മാധ്യമങ്ങളെളക്കിയ വിഷയങ്ങൾ ഇവിടത്തെ സമുദായങ്ങളെ തമ്മിൽ എന്തുമാത്രം വൈര്യത്തിലും പ്രകോപനവും സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകളെ തമ്മിൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കുക അതിലൂടെ മുതലെടുപ്പ് നടക്കുക സെൻസിറ്റീവ് വാർത്തകളെ സെൻസിറ്റീവ് ആക്കുക അതിലൂടെ ലാഭം കൊയ്യുക എന്നുള്ള മാത്രം മാധ്യമം ധാർമികത എന്ന് പറയുന്നത് ലെവലേശമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് മനുഷ്യനെ രാഷ്ട്രീയത്തിലായാലും സമുദായത്തിലായാലും സാമൂഹികമായാലും അവരെ ഭിന്നിപ്പിച്ച് അവരെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് സെൻസേഷ്നലായിട്ട് വാർത്തകൾ സൃഷ്ടിച്ച് അതിലൂടെ ലാഭം കൊയ്യാൻ മാത്രം ശ്രമിക്കുന്ന ഈ ആട്ടിൻമുട്ടന്മാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കൻ്റെ വ്യഗ്രതയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സത്യത്തിൽ ഈ മാധ്യമങ്ങളെ പൊതുവായിട്ട് സമൂഹം ഇത്തരം മാധ്യമങ്ങളെ ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇവിടെ മാധ്യമങ്ങൾ ഈ സാമുദായികമായ വിഷയങ്ങൾ മാത്ര അല്ല ഏത് വിഷയവും ഏത് വിഷയം കയ്യി കിട്ടിയാലും അതിനെ എങ്ങനെ സെൻസിറ്റീവാക്കാം എന്നുള്ളത് മാത്രമാണ് ഇവർ ഗവേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രവർത്തികളെ നിരുത്സാഹപ്പെടുത്തണം അതിന് ശക്തമായ നിയമ നിർമ്മാണം തന്നെ വേണ്ടി വന്നാൽ അത് ചെയ്യാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്